ഇത് മാനന്തവാടിള്ള സെഞ്ച്വറി ഹോട്ടലല്ലേ ഞാനിപ്പം ഇവിടെ വെള്ളമുണ്ടെൽ ഉണ്ട് അപ്പം എനിക്ക് നിങ്ങളുടെ ഹോട്ടൽ വന്നിട്ടൊരു ഭക്ഷണം കഴിക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഹോട്ടല് നോക്കുന്നില്ല വെള്ളമുണ്ടാ അപ്പോൾ ഞാൻ മാനന്തവാടിക്ക് വരാൻ നിൽക്കുവാണ് അപ്പം എന്തൊക്കെ സ്പെഷ്യല് അവിടെ ഉള്ളത് ഇപ്പം അ ഓക്കെ ഓക്കെ ഇപ്പോൾ എന്തൊക്കയാണ് സ്പെഷ്യൽ എന്തൊക്കയാണ് ഉള്ള് അവിടെ ഞാൻ ദുബായിൽ നിന്ന് വന്നതേ ഉള്ളു രണ്ട് ദിവസം മുമ്പേ അപ്പോൾ എനിക്ക് ഈ നാടൻ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര താൽപര്യ അപ്പോൾ പിന്നെ ഞാനത് അന്വേഷിച്ച് എന്തെക്കയാണ് ഉള്ളത് ഫിഷ് ഐറ്റംസ് എന്തെക്കയാണ് ഉള്ളത് നിങ്ങളുടെ സ്പെഷ്യൽ നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ് കൂടുതൽ റെക്കമെൻറ്റ് ചെയ്യുന്നത് ആണോ അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് കഴിഞ്ഞാൽ ചിക്കൻ ഐറ്റം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഫിഷ് ഐറ്റംസ് മതി ചിക്കൻ താല്പര്യമില്ല നമ്മള് ദുബായിൽ നിന്ന് വന്ന നമുക്ക് അവിടെ ഇത് ചിക്കൻ കഴിച്ച് കഴിച്ച് മടുത്തിട്ട് നമ്മുടെ നാട്ടില് വന്നിട്ട് നാടൻ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരുവാണ് അപ്പോൾ ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങള് ഒരു ചട്ടിച്ചോറ് എന്തൊക്കെയാണ് വരുന്നത് ചട്ടിച്ചോറില് മിക്സിങ്ങ് എന്തൊക്കെയാണ് വരുന്നത് നോൺ വെജ് ബീഫ് അങ്ങനെ ചിക്കൻ അങ്ങനെ ഒക്കെ വരുന്നില്ലേ ഞാൻ ഇപ്പം ഇടയ്ക്ക് നിങ്ങളുടെ ഒരു പേജ് കണ്ടിരുന്നു ഇൻസ്റ്റഗ്രാമില് അപ്പോൾ അതിലിങ്ങനെ ചട്ടിച്ചോറില് നിങ്ങളുടെ കുറെ വിഭവങ്ങൾ കണ്ടിരുന്നു ആണോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ ആ പേജിലങ്ങനെ കണ്ടിട്ട് വിളിച്ചാണ് ആണോ ഞങ്ങള് രണ്ട് പേരുണ്ട് ഇപ്പോൾ ഒരാളേയും കൂടെ കൂട്ടാമെന്ന് വെച്ചിരിക്കുകയാണ് ആണോ ഓക്കെ ഓക്കെ എന്നാൽ ഞങ്ങള് ഇപ്പോൾ ഇറങ്ങാം നല്ലതാണേൽ ഞങ്ങള് എന്താ പറയുക ബാക്കി ഉള്ളവർക്ക് റെക്കമെൻറ്റ് ചെയ്യും ഞങ്ങള് നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് വയനാട്ടോട്ട് അപ്പോൾ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഒക്കെ ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നോക്കിയിട്ട് പറ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ എത്തും കെട്ടോ അ ഞാൻ അര മണിക്കൂറിൽ എത്തും നമുക്ക് ഒന്ന് ഇത് ഒന്ന് ഷൂട്ട് ചെയ്യാനൊ അതെ ഓക്കെ ഓക്കെ ഞങ്ങള് ഫോർ വീലുംകൊണ്ട് ഫോർ വീലുംകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഒക്കെ ഇങ്ങള് ഒപ്പിച്ച് തരണം ഓക്കെ എന്നാൽ ഞങ്ങള് ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും കെട്ടോ